ഹലോ ആ ഇതില്ലേ എൻ്റെ ഫാന് കറങ്ങുന്നില്ലേനു എന്ത് പറ്റീയോ അറീല്ല ഇത് ഇപ്പോൾ രണ്ട് ദിവസമായി കറങ്ങാതെ ഇത് ഇടയ്ക്കിടക്ക് ഇങ്ങനെത്തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം ആ ഇതിന് മുമ്പ് ഇതിന്റെയടുത്തുള്ള ഒരാളേനും ചെയ്ത് തന്നത് പക്ഷെ ഇതിപ്പം നോക്കുമ്പോൾ രണ്ടുമൂന്ന് പ്രാവശ്യമായി ഇടയ്ക്കിടയ്ക്കുതന്നെ ഇങ്ങനെയാവുമെന്ന് ആ ആ അതന്നേരം മാറ്റിയ ഇങ്ങൾ മാറ്റിത്തരാൻ പറ്റൂല്ലേ അ സ അ സാധനമെല്ലാം നിങ്ങളെടുത്തോളൂല്ലെ നമ്മൾ വാങ്ങണോ ആ എത്ര പൈസയാവും മുന്നൂറ്റി അയിമ്പതാ ആ അപ്പം എപ്പം ഇങ്ങക്ക് വരാൻ പറ്റുക കൂത്തുപ്പറമ്പ് എണ്ണുവരിപ്പാലം ആ അങ്കൻവാടിയുടെ അടുത്തായിട്ടാ വരുക അങ്കൻവാടിയുടെ നേരെ ബാക്കിലായി തന്നയാ വരുക നാളെ ഉച്ചയാവുമ്പോൾ വരുക അ ഇങ്ങള് വരുമ്പം ഒന്ന് വിളിച്ചാൽ മതി ഈ നമ്പറിൽ വിളിച്ചോ ആ എന്തോ എന്തോ ഒരു ഈ എന്തോ ഒരു ഇതാ വരുന്നെ ഒച്ചയാ വരുന്നേ ഈന് ഉം ഭയങ്കര ചിലപ്പോൾ ഭയങ്കരമായിട്ടൊരു ശബ്ദം വരും ഇതിന്റെയുള്ളിൽനിന്ന് എന്നാ ന ആ നാളെ വരുമ്പോൾ വിളിക്കാം എന്നാൽ ശരി എന്നാൽ